ഞാൻ സ്കൂളിലോ കോളേജിലോവച്ചു ചിത്രരചന പഠിച്ചിട്ടില്ല കലാകാരന്മാർക്ക് ഉപകാരപ്പെടുന്ന നല്ല കോളേജുകളെക്കുറിച്ചു പറയുകയാണെങ്കില് കലാകാരന്മാർക്കു വളരെ ഉപകാരപ്പെടുന്നൊരു കോളേജാണ് കാലിഫോർണിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ് അവിടെ പോയാല് കലാകാരന്മാർക്ക് ഏതു തരത്തിലുള്ള കലാരീതികളും പരിചയപ്പെടാനും അതു പരിശീലിക്കാനുമുള്ളൊരവസരം കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ് നൽകുന്നുണ്ട് കാരണം അവിടെവച്ച് അവിടെനിന്നു പഠിച്ചിറങ്ങിയ ആളുകളാണു ലോകത്തെ ഒരു എൺപതു ശതമാനം എൺപതു ശതമാനം ചിത്രകഥാകാരന്മാരും കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സില് പഠിച്ചിറങ്ങിയ ആളുകളാണ് പിന്നീട് ആ കോഴ്സുകളെക്കുറിച്ചു പറയുകയാണെങ്കില് ഗ്രാഫിക് ഡിസൈനിങ് അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് അതുപോലെ അഡോബ് പിന്നീട് അങ്ങനത്തെ കോഴ്സുകളൊക്കെ എടുക്കുന്നതും പഠിക്കുന്നതും ഈ കലാകാരന്മാർക്കു വളരെ സഹായകരമായിരിക്കും പിന്നീട് ഞാൻ കലാജീവിതത്തില് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളെയും കുറിച്ചു പറയുകയാണെങ്കില് കലാജീവിതത്തില് എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു രണ്ടു ശകലങ്ങളൊക്കെ ഉള്ള ഒരു കവിത എനിക്ക് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും മാതൃക അല്ലെങ്കില് ഒരു പാഠമാകുന്ന ഒരു പ്രചോദനമാകുന്ന ഒരു കഥാപാത്രമുള്ള ഒരു കഥ എഴുതണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് അവ നേടിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള പദ്ധതി എന്ന് ഉദ്ദേശിക്കുകയാണെങ്കില് ഞാന് എപ്പോഴും എൻ്റെ ജീവിതത്തില്നിന്നു തന്നെ അവലോകനം ചെയ്തുകൊണ്ട് എൻ്റെ കഥയിലെ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതു കാരണം ഇത്തിരി ഈയിടെയായിട്ടു ഞാനിങ്ങനെ ആലോചിച്ചപ്പോള് എൻ്റെ മനസ്സിലേക്കു വന്നൊരു കഥാപാത്രമാണു വീടു വിട്ട് വീടിനെക്കുറിച്ചുള്ള ആശങ്കളില് വീടിനോടുള്ള മതിപ്പു കുറഞ്ഞുകണ്ട് വീടു വിട്ടിറങ്ങുന്നൊരു ബാലൻ പിന്നീട് അവൻ പുറത്തൊക്കെ പോയ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ആളുകളെയൊക്കെ കണ്ടു മുട്ടുകയും അനുഭവങ്ങള് ശേഖരിക്കുകയും ചെയ്തതിനുശേഷം തിരിച്ചു വീട്ടിലേക്കു വന്ന് അവനെങ്ങനെയാണ് ആ വീടിൻ്റെ ഒരു വില വീടിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്ന ആ ഒരു അവൻ വീടു വിട്ടു വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു കാലയളവില് അവനു വീടിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഒരു വിലയും മനസ്സിലാക്കുന്നൊരു കഥയാണു ഞാന് ഈയിടയായിട്ട് ഞാന് ആലോചിച്ചുവച്ചിട്ടുള്ളത് അതുപോലുള്ള ആളുകൾക്കു പ്രചോദനമാകുന്ന അല്ലെങ്കിൽ ആളുകൾക്കു പാഠമാകുന്ന ഒരു കഥകളും അല്ലെങ്കില് കലാ സൃഷ്ടികളൊക്കെ നടത്തണമെന്നാണ് എൻ്റെ ഒരു കലാജീവിതത്തില് ഞാന് നേടിയെടുക്കാനാഗ്രഹിക്കുന്ന അഭിലാഷങ്ങൾ